ഗതാഗത സംവിധാനം ഇന്ത്യയില് ഒരുപാട് തരം പ്രശ്നങ്ങളിലേക്ക് കടന്ന് പോകുകയാണ് ഒരുപാട് നിരത്തിൽ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നതിനാൽ തന്നെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സമൂഹത്തിന് തന്നെ ഉണ്ടാവുന്നുണ്ട് റോഡ് സൈഡിൽ ജീവിക്കുന്ന പല വീട്ടുകാർക്കും അതിൻ്റെ അസുഖങ്ങളാലായാലും എന്ത് രീതിയിലായാലും അവര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുകയാണ് ഇത്രയും വണ്ടികളിപ്പോള് നമുക്ക് നിലവിൽ ഇപ്പോൾ ഒരുപാട് വണ്ടികളാണ് ദിനം പ്രതി റോഡിലിറങ്ങുന്നത് വണ്ടികളുടെ അളവിന് കൂടുന്നതിനനുസരിച്ച് അതിന് അതിൽ നിന്ന് ഇപ്പോള് വരുന്ന പുക കാരണമുള്ള എല്ലാ മനുഷ്യർക്കും വരുന്ന അസുഖം ആസ്മ പോലുള്ള വലിയ വലിയ അസുഖങ്ങളിലേക്കാണ് പലരും തള്ളി നി ഇപ്പോള് ഇമ്യൂണിറ്റി പവര് കുറവുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് അസുഖങ്ങളിലേക്ക് പോകാം അതുപോലെതന്നെ ഈ റോഡിലൊക്കെ ഒരു എന്തെങ്കിലും റോഡ് പണി നടക്കുകയാണേൽ അവിടിത്രയും വണ്ടികളൂടെ തിങ്ങി തിരിങ്ങി നല്ല ബ്ലോക്ക് വരും ആ ബ്ലോക്കിനിടയിൽ നമുക്ക് ഒരുപാട് അസുഖ പ്രശ്നങ്ങൾക്കായിട്ടും അതിൻ്റെ പുക പുകയുടെ പ്രശ്നങ്ങളുമെല്ലാം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി വരുന്നെ വരികയാണിപ്പോൾ അതുപൊലെതന്നെ നമ്മള്ക്ക് ഒരുപാട് വണ്ടികള് വരുന്നതിനനുസരിച്ച് പെട്രോളിൻ്റെ വിലയും അതിനായിരിക്കും കുട്ടിയിടുമ്പോള് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിൽ നിന്ന് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് നമുക്ക് എപ്പഴും ഉണ്ടാവുന്ന ഈ അപകടങ്ങളാണ് ആർക്കും ആരും വിചാരിക്കാത്ത നിമിഷങ്ങളിലാണ് നമുക്കിപ്പോള് വഴിയോരങ്ങളിൽ കടക്കാരുണ്ട് അവർക്ക് വരെയും ഇത് ബുദ്ധിമുട്ടായി മാറും ഈ പോകുന്ന വണ്ടികൾ തമ്മിൽ രണ്ട് വണ്ടി കുട്ടിയിടിക്കുന്നതിലൂടെ ആ വണ്ടിക്കാർക്കും ആ വണ്ടി ഓട്ടിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആളുകൾക്കും പുറമെ അവിടെ ആ റോഡ് സൈഡില് ജോലിക്കായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ബസ്സ് കാത്തുനില്ക്കുന്ന ആളുകളുമായിട്ടോ അങ്ങനെ ഉള്ളവർക്കായാലും പലർക്കും ഈ അപകടങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് വണ്ടി ഒരുപാട് ഗതാഗതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഈ ഏറ്റവും വലിയൊരു രീതിയിൽ തന്നാണ് ഇപ്പോഴത്തെ പുക പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ഇവരുടെ ഈ പുക വരുന്നതിനപ്പുറം നമുക്കെല്ലാവർക്കും വീട് വീട്ടിലുള്ള എല്ലാ ഈ റോഡ് സൈഡിൽ കാണുന്ന വീടുകളുള്ള ആളുകൾക്കാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും ഈ സമൂഹത്തിലിപ്പോള് ഉള്ള എല്ലാവർക്കും കൂടുതല് ആസ്മ വരാൻ ഒരു കാരണമാക്കുന്ന ഇത്രയും ശ്വസിക്കാൻ പാടില്ലാത്ത ഈ പുക പുറന്തള്ളപ്പെടുന്നതിനാലാണ് അതുപോലെതന്നെയാണ് ഈ അപകടവും ഇത് രണ്ടും നമുക്കിപ്പോള് ഈ ഗതാഗതം കാരണം ഭയങ്കര പ്രശ്നമായിത്തീരുകയാണ് ഗതാഗതം വണ്ടികൾ ഒരുപാടാണ് ഇപ്പോള് നിലവിൽ ഒരുപാട് വണ്ടികൾ നിരത്തിൽ ഉറങ്ങുന്നതിനാൽ തന്നെ നമക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വരുന്നത്